ഹലോ ഹലോ സോഫിയാമ്മ അല്ലേ അതെ ആ എനിക്കെ ഒരു സ്ഥലം വേണമായിരുന്നു എൻ്റെ പേര് ബിൻസി എന്നാ എനിക്ക് ഒരു പുര വയ്ക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ അപ്പോൾ നിങ്ങളുടെ കേറോഫിൽ എങ്ങാനും സ്ഥലം വല്ലതും ഉണ്ടോ മ്മ് നമുക്കൊരു മുപ്പത് പത്ത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടണം

നമുക്ക് റോഡ് സൗകര്യം വേണം മ്മ്

മ്മ് മ്മ് ഞങ്ങൾക്ക് സ്ഥലം അധികം ഇല്ലെങ്കിലും കുഴപ്പം ഇല്ല ആ എന്നാലും നമുക്ക് ഒരു റോഡ് സൗകര്യം വെള്ള സൗകര്യം ഒക്കെ വേണം എന്നുണ്ട് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് ഉള്ള ഒരു ആ നമുക്ക് അപ്പോൾ ഈ ഇരുപത്തഞ്ചിൽ താഴെ ഇരുപത്തഞ്ച് മാക്സിമം ഇരുപത്തഞ്ച് വരെ കിട്ടുമോ

മ്മ് മ്മ് മ്മ് ഒരു വീട് മ്മ്

മ്മ് നമുക്ക് പണിയാൻ ആണെങ്കിൽ എന്നാ വിലക്ക് സ്ഥലം ഇവിടെ ഒക്കെ എങ്ങനെയാ സെൻറ്റിന് വില മ്മ് കിട്ടും അപ്പോൾ നമുക്ക് ഇത്തിരി റോഡ് സൗകര്യം ഒക്കെ വേണ്ടത് കൊണ്ട് മ്മ്

നോക്കിയിട്ട് ഉണ്ട് ആ മ്മ് ആ ആ ആ കൊടുക്കാനുണ്ട് അപ്പോൾ അവിടെ പണി തീർന്നു കിടക്കുന്ന വീട് ആണോ ആണല്ലേ ആ മ്മ്

കിടപ്പുണ്ട് മ്മ് മ്മ് മ്മ് മ്മ്

മ്മ് നിങ്ങളുടെ അവിടെ തന്നെ പണികാരെ ഒക്കെ കിട്ടുമോ നമുക്ക് കിട്ടും

ശരിയാണ് മ്മ് മ്മ് നമുക്ക് വീട് കിടക്കുന്നത് എത്ര മുറിയൊക്കെ ഉള്ള ഒരു വീടാ കിടക്കുന്നത് മ്മ് മ്മ് ചെറിയൊരു കുടുംബത്തിനുള്ള മ്മ് മ്മ് മ്മ് ഉണ്ട് മ്മ് മ്മ് ഉണ്ട് ആ മ്മ് മ്മ് ബാക്കി ആ കറണ്ടും ഉണ്ട് മ്മ്

മ്മ് പറ്റത്തും ഇല്ല മ്മ് മ്മ് മ്മ് ആ മ്മ് മ്മ് ആ ചെറിയ റോഡ് മ്മ് മ്മ് വന്ന് കണ്ടിട്ട് മ്മ് ആ വന്ന് കണ്ടിട്ട് മ്മ് ആ ശരി മ്മ്